നമ്മുടെ ഇന്ത്യയിൽ ധാരാളം ശാസ്ത്രജ്ഞർ ഉണ്ട് അവരേക്കുറിച്ച് നമ്മൾ പഠിക്കുകയും വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ബഹിരാകാശ ഗവേഷണങ്ങൾ നടത്തുന്നവർ ചന്ദ്രയാൻ യാത്രയ്ക്ക് മുൻകൈെ എടുത്തിട്ടുള്ളവർ അതുപോലെ റോക്കറ്റ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ളവർ അങ്ങനെ എത്രയോ പ്രഗൽഭരായ ശാസ്ത്രജ്ഞർ ഭാരതത്തിൻ്റെ സംഭാവനയാണ് അതിൽ ഏറെ നമുക്ക് അഭിമാനിക്കാം അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമാണ് എ പി ജെ അബ്ദുൾ കലാം മുൻ ഇന്ത്യൻ പ്രസിഡൻ്റ് കൂടിയായ അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ശാസ്ത്രബോധം ഏറെ കുട്ടികൾക്ക് ചിന്തിക്കാനും പഠിക്കാനും പ്രചോദനമായി മാറിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലിതന്നെ ഒരു ഗവേഷണമാണ് ആ ഗവേഷണരീതി പലപ്പോഴും കുട്ടികളിലേക്ക് എത്തിച്ചേരാനും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതിനും കുട്ടികൾക്ക് ഏറെ സഹായകരമായിട്ടുണ്ട് ഇന്ന് ലോകം ഏറെ ഏറെ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനത്തോടെ നോക്കുന്ന വ്യക്തിയാണ് അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി അദ്ദേഹം മുന്നോട്ടുവെച്ച മാനവീയത ഒക്കെ ഏറെ ചിന്തനീയമാണ് അതോടൊപ്പം തന്നെ ഈ ഗണിത ശാസ്ത്രജ്ഞരെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ട് നിർവ്വാഹമില്ല അവരെക്കുറിച്ച് അധികം നമ്മൾ പഠിച്ചിട്ടില്ല അതുകൊണ്ടുതന്നെ അവരെക്കുറിച്ച് പറയുന്നില്ല ഇന്ത്യൻ ശാസ്ത്രജ്ഞരായതുകൊണ്ട് എങ്കിൽപ്പോലും പൊതു ബോധത്തിൽ നിന്ന് പറയുമ്പോൾ മറ്റേതൊരു രാജ്യത്തെയും ശാസ്ത്രജ്ഞരെ അതിൽ ലയിക്കുന്ന വിജ്ഞാന ബോധം നമ്മുടെ ഇന്ത്യൻ ശാസ്ത്രജ്ഞർക്ക് ഉണ്ട് എന്ന് നമുക്ക് അഭിമാനിക്കാം നമ്മുടെ ഗവൺമെൻ്റ് തന്നെ പലപ്പോഴും ശാസ്ത്രമേളകൾ നടത്തുകയും സ്കൂളുകൾ ഉൾപ്പെടെ ശാസ്ത്രമേളകൾ നടത്തുകയും കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഉള്ളവരുടെ വീക്ഷണ ത്വരയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പുതിയ മേഖലകൾ കണ്ടെത്തുന്നതിനും ഒക്കെ സഹായകരമായ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപത്തി ഏഴിനുശേഷം ഇന്ത്യയിൽ വിപ്ലവകരമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യയിലുള്ള വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് ഈ നമ്മുടെ കൃഷിരംഗത്ത് അതുപോലെ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ബഹിരാകാശ ഗവേഷണ രംഗങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗങ്ങളിൽ എല്ലാം എടുത്തു പറയാൻ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് അവിടെ എല്ലാം തന്നെ വളരെ പ്രശംസനീയമായിട്ടുള്ള മികവു പുലർത്താനായിട്ട് ഇന്ത്യൻ ശാസ്ത്രജ്ഞർക്ക് സാധിച്ചിട്ടുണ്ട് ഗണിത ശാസ്ത്രജ്ഞരെക്കുറിച്ച് പറയുമ്പോഴ് ഇതുമായിട്ട് എത്രത്തോളം ബന്ധപ്പെട്ടതാണ് എന്നു നമുക്കറിയില്ല എങ്കിൽപ്പോലും നമ്മുടെ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്ന പല ഗണിത ശാസ്ത്രവും പലപ്പോഴും കുട്ടികൾക്ക് ഒരു എഴുപത്തഞ്ച് ശതമാനം കുട്ടികൾക്ക് ഉപകാരപ്രദമല്ലാത്ത ഒരു അധ്യയന രീതിയാണ് ആ മേഖലയുമായിട്ട് ബന്ധിപ്പിച്ച് കുട്ടികൾക്ക് ഉപകാരപ്രദമായ മേഖലകളിലേക്ക് ഗണിത ശാസ്ത്രത്തേയും മാറ്റിയെടുക്കേണ്ട ഒരു അനിവാര്യതയുണ്ട് അതിനുകൂടി കാർഷിക രംഗങ്ങളിൽ ഇഷ്ടപ്പെടുന്ന കൃഷി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് കൂടുതൽ ഗണിത ശാസ്ത്രം പഠിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല അതുപോലെ ഒരു ഡോക്ടറാകാൻ എം ബി ബി എസ് എടുക്കുന്ന മെഡിക്കൽ ഫീൽഡിലേക്ക് പോകുന്ന ഒരു കുട്ടിക്കും ഗണിത ശാസ്ത്രത്തിൻ്റെ നൂലാമാലകൾ കണ്ടുപിടിക്കുന്നതുകൊണ്ട് വലിയ പ്രയോജനമില്ല പക്ഷെ അങ്ങനെയുള്ള വേർതിരിവുകൾ കണ്ടെത്തി കുട്ടികൾക്കാവശ്യമായിട്ടുള്ള മാർഗ്ഗനിർദേശങ്ങളാണ് കൊടുക്കേണ്ടതെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമിപ്പിക്കുക കൂടിയാണ് താങ്ക് യു